ഞാൻ കുറെ ദിവസം എവിടേക്കെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ വീട്ടിലെ ചെടികളൊക്കെ കൂടുതലും ഇൻഡോർ പ്ലാൻറ് ആണ് അപ്പം പിന്നെ ചകിരിച്ചോറ് ഒക്കെ ഇട്ട് നനച്ചതുകൊണ്ട് തന്നെ ആഴ്ചയിലൊക്കെ നനച്ചാൽ മതി പെട്ടെന്ന് എന്നൊന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എങ്ങനെയായാലും നിൽക്കും കുഴപ്പമില്ല പിന്നെ രണ്ടാഴ്ച കൂടുതലൊക്കെയാണ് ഒരു മാസത്തെ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോവാന്നെങ്കിൽ നെയ്ബേർസിനോട് പറയും അവർ വന്ന് നനക്കുകയാണ് ചെയ്യുക വലിയ പ്രശ്നമൊന്നുമില്ല ചെടികളൊക്കെ ഇൻഡോർ ആയതുകൊണ്ട് അവയെ പരിപാലിക്കാൻ എളുപ്പമാണ് കാടൊക്കെ നമ്മൾ എപ്പോഴും പുറത്തുകൂടി നടക്കുന്ന സമയത്തൊക്കെ അതിൽ കൂടി രാവിലെ ഒന്ന് ഇറങ്ങി നടക്കും എല്ലാം നോക്കൂം അപ്പം കാടൊക്കെ അപ്പപ്പം പറിക്കും പിന്നെ വെള്ളമൊക്കെ നിൽക്കും എന്നും എന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇൻഡോർ പ്ലാന്റിന് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എനിക്കത് പരിപാലിക്കാൻ പറ്റുന്നുണ്ട്